ആ ഹലോ ഇത് ആ വസന്ത് വിഹാർ ആണല്ലേ നമ്മൾ ഇത് കാസർകോഡുണ്ട് ഞാൻ ഇത് നമ്മൾക്ക് നമ്മൾ ഒരു പത്ത് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളെ മസാല ദോശക്ക് ഭയങ്കര ഫേമസൂന്ന് നമ്മൾക്ക് അറിഞ്ഞു ആ അപ്പോൾ അത് തന്നെ അപ്പോൾ അവിടെ വന്നാൽ ഇപ്പോൾ കിട്ടുമോ തിരക്കുണ്ടോ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചത്

നമ്മൾ ഒരു പത്ത് ആൾക്കാരുണ്ട് പത്ത് ആൾക്കാർ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടോ ആ ആ ഓക്കെ ഓക്കെ ഈ മസാല അല്ലാതെ രണ്ട് ടേബിള് മതി മസാല ദോശ അതിൻ്റെ വേറെ എന്ത് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്താണ് ഇല്ലെ ആ ചട്ണി തരും ആ വേണ്ട അല്ലേ അല്ല ഇപ്പോൾ നമ്മൾ വരുന്നത് ദൂരെ നമ്മൾ കോട്ടയത്തു നിന്ന് വരുന്നത് അപ്പം നമ്മൾ ഇത് ആ നമ്മൾ ഇത് നിങ്ങളെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മസാല ദോശ നല്ല ഫേമസ് നമ്മൾക്ക് മനസ്സിലാവും വസന്ത് വിഹാറ് ഫേമസ് എന്ന് ആ കിട്ടീന് അല്ലേ നമ്മൾ ഇതിൽ കണ്ടിരുന്നു മറ്റേ നമ്മളെ ഈ ടിക്ടോക്കിലും റീൽസ് എല്ലാം കണ്ടിരുന്നു അപ്പോൾ അത് അത് പറഞ്ഞിട്ട് വിളിച്ചത് ആ പിന്നെ ഇപ്പോൾ അവിടെ വരുന്ന വഴി ഒന്ന് പറയുമോ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് ഇപ്പം നമ്മൾ

സുൽത്താൻ ഒക്കെ ഉം സുത്താൽ ഗോൾഡ് കാണുമല്ലോ ബോർഡ് എല്ലാം കാണുമല്ലോ ഇങ്ങനെ അവിടെ പറഞ്ഞാൽ മതി അല്ലേ എല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലേ ആ ആ അതെ നമ്മൾക്ക് പെട്ടെന്ന് വേണം അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ സെറ്റാക്കി വച്ച് നിൽക്ക് എന്താണ് നമ്മൾ ബന്നിറ്റാമ്പൊ അല്ലാതെ കാത്ത് നിൽക്കാൻ വയ്യ

ശരി ശരി ഓക്കെ ഇപ്പോൾ എത്തും ഓക്കെ ഓക്കെ ശരി വരുന്നുണ്ട്